ഞാന് ഇതിൻ്റെ മുന്നേ ആദ്യമായിട്ട് സൗദി അറേബ്യ പോവുമ്പോള് മലയാളല്ലാത്തൊരു ഭാഷയും അറിയില്ല അങ്ങനൊരുപാട് ബുദ്ധിമുട്ടേണ്ടി വന്നിട്ടുണ്ട് പിന്നെ അവര് പറയുന്നതും ഇംഗ്ലീഷായാലും അറബിയായാലും നമ്മള് കുറേ ആക്ഷൻന്ന് മനസ്സിലാക്കുക പിന്നെ ചുണ്ടിൻ്റെ ചലനങ്ങളെന്ന് പറയുന്നത് മനസ്സിലാക്കുക അങ്ങനത്തെ അനുഭവങ്ങള് കുറേ ഉണ്ടായിട്ടുണ്ട് പല കാര്യങ്ങൾക്കും ഒരു ഡോക്ടറെ കാണാനോ അങ്ങനെന്തെങ്കിലുമൊരു ബുദ്ധിമുട്ട് വന്ന് കഴിഞ്ഞാല് അതിനൊക്കെ വലിയ ബുദ്ധിമുട്ടുതന്നെ ആയിരുന്നു കാരണം മലയാളം അല്ലാത്തൊരു ഭാഷയും അറിയില്ല നമ്മുടെ കൂടെ മറ്റുള്ളവരെന്നു പറഞ്ഞുകഴിഞ്ഞാല് ജോലി ചെയ്യുന്നത് അറബികളും ഫിലിപ്പീനികളും ഒക്കെ ആയിരുന്നു അപ്പോള് അത്തരം നല്ല ബുദ്ധിമുട്ടുതന്നെ മറ്റുള്ള ഭാഷകളറിയാത്തതുകൊണ്ട് ബുദ്ധിമുട്ടിയിട്ടുണ്ട് ജോലി കാര്യങ്ങളായാലും ജോലിക്ക് പോയി ഫസ്റ്റ് ദിവസം ജോലിക്ക് പോയി ജോലി ചെയ്ത് പോന്നു പിറ്റേ ദിവസം ചെന്ന് എന്താ ചെയ്യണ്ടതെന്നുള്ളത് അറിയാതെ ഒക്കെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് കാരണം അത് ഇന്നത് ചെയ്യണം എന്ന് പറഞ്ഞ് കഴിയുമ്പോഴേക്ക് മനസ്സിലാക്കേണ്ട മൻസ്സിലാക്കാൻ കഴിയാതെ വളരെ ബുദ്ധിമുട്ടിയിട്ടുണ്ട് ഭക്ഷണത്തിന് വേണ്ടി എവിടെങ്കിലും യാത്രയിലാണെങ്കിലും പിന്നെ അന്ന് മൊബൈലും കാര്യങ്ങളൊന്നും ഇറങ്ങാത്ത ടൈമായതുകൊണ്ട് ട്രാൻസ്ലേഷൻ നോക്കിയിട്ടൊന്നും നോക്കാന് ഇതിനൊന്നും സാധിക്കോ ഇല്ല സാധിക്കുമോ ഇല്ല അത്തരം ബുദ്ധിമുട്ടുകളൊക്കെ ഒരുപാട് അനുഭവിച്ചിട്ടുണ്ട്